ഇപ്പം വയനാട് ജില്ലയിലെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടും ഇവർക്ക് പി എസ് സി ജോലികളൊക്കെ ഇപ്പോൾ കുറവാണ് അപ്പോൾ പി എസ് സി ജോലിയും ഗവൺമെന്റ് ജോലിയൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാത്തൊരവസ്ഥയാണ് കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് എക്സാമൊക്കെ എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ പിന്നെ വലിയ പൈസ കൊടുത്ത് കയറുന്നവരൊക്കെ മാത്രമേ ഉള്ളൂ നമ്മൾ ഏത് പാർട്ടീന്റെ കൂടെ ആണെങ്കിലും അവരും നമ്മുടെ വലിയ കാര്യമായിട്ടുള്ള നല്ല ജോലികളോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല അപ്പോൾ അവരൊക്കെന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ വയനാട് ജില്ലയിലുള്ള ആൾക്കാരന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള തൊഴിൽ മേഖലകളിലേക്കാണ് പോകുന്നത് കൂടുതലാൾക്കാരും ഈ നിർമാണ തൊഴിലാളികൾ അതായത് തൊഴിൽ കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് അതായത് വീട് വെക്കാനും അങ്ങനത്തെ കോണ്ട്രാക്ടറ് അങ്ങനത്തെ വർക്കുകളിലേക്കാണ് പോകുന്നത് പിന്നെ അതായത് തേപ്പ് പേയിന്റിങ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കൂടുതലും പോകുന്നത് യു യുവ തലമുറയും ഏകദേശം എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാരിപ്പണി അങ്ങനത്തെ പലതരം പണികളുണ്ട് ആ പിന്നെ അല്ലാത്ത ആൾക്കാരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയായിട്ടാണ് നോക്കുന്നത് സോഫ്റ്റ് വെയര് അങ്ങനത്തെ കാര്യങ്ങള് സോഫ്റ്റ് വെയര് എൻജിനിയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കീട്ട് ബാഗ്ലൂര് പുറമെ പോവാ ഇപ്പോൾ നമ്മൽ ഇന്ത്യ വിട്ടു തന്നെ പുറമെ പോയിക്കഴിഞ്ഞാൽ നല്ല സാലറീം കാര്യങ്ങളൊക്കെ കിട്ടുന്നോണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത് അപ്പം ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്